ജല മലിനീകരണം ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട് അതായത് ഇപ്പം ഇപ്പോൾ കടലിൽ കാണാൻ കാഴ്ച കാണാൻ പോകുന്ന ആൾക്കാർ വേസ്റ്റ് ഇടുക കുപ്പി അതുപോലെത്തന്നെ പ്ലാസ്റ്റിക് കവറുകൾ ഇപ്പോൾ ഐസ് ക്രീം കഴിച്ച തൊണ്ടുകൾ അങ്ങനെയൊക്കെ

നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് അപ്പപ്പോൾ ഒരു ഒരു പ്രളയം അതുപോലെത്തന്നെ ജലം ഈ ഈ നില നെലനിര ജലനിരപ്പ് ഉയരുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്ലാസ്റ്റിക് ഒക്കെ കൂടി എന്ത് ചെയ്യും കടലിലേക്ക് തിരിച്ച് പിന്നെ ഇറങ്ങുക വെള്ളം ഇറങ്ങുന്ന സമയത്ത് തിര ആ വേസ്റ്റ് ഒക്കെ കൂടി കടലിലേക്കാണ് പോകുന്നത് അപ്പം നമുക്ക് മത്സ്യബന്ധന സമയത്ത് അതൊരുപാട് പരിസ്ഥിതി പ്രശ്നമുണ്ടാക്കും കാരണം എന്താച്ചാൽ വലയെറിയുന്ന സമയത്ത് ഈ സാധനങ്ങൾ അല്ലേ ഈ പ്ലാസ്റ്റിക് അതുപോലെത്തന്നെ ഈ ബോട്ടിലുകളും അതൊക്കെയാണല്ലോ നമുക്ക് കിട്ടുന്നത് അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് അതൊക്കെയാണ് പരിസ്ഥിതി പ്രശ്നങ്ങളായിട്ട് ഉള്ളത്